ആ കേ പറയൂ സാർ കേൾക്കുന്നുണ്ട് മിസ്സേ കേൾക്കുന്നുണ്ട് ആ ഹാ എന്താണ് മിസ്സേ പിന്നെ ആ ആ ഇല്ല മിസ്സേ എൻറെയും കംപ്ലീറ്റ് ആയിട്ടില്ല എൻറെയും എല്ലാ ക്ലാസിലെയും പോഷൻസ് കംപ്ലീറ്റ് ആക്കാൻ കിടക്കുവാണ് മിസ്സിൻ്റെ കംപ്ലീറ്റ് ആയോ ആണോ എനിക്ക് മൂന്നാലഞ്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തീർക്കാനുണ്ട് മിസ് ഏതൊക്കെ ക്ലാസ്സിലുണ്ട് പോഷൻസ് കംപ്ലീറ്റ് ആക്കാൻ

ആക്ച്വലി ആ സാറ്റർഡേ ക്ലാസ് വെച്ചാൽ പകുതി സ്റ്റുഡൻറ്സും വരത്തുമില്ല പിന്നെ എക്സാം ഒക്കെ അടുത്തില്ലേ മിസ്സേ മിസ്സിൻ്റെ ടെൻത്തിൻറെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയോ ടെൻത്തിൻ്റെ പോർഷൻ ആ എനിക്കും അവിടുത്തെയാണ് കൂടുതൽ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കാനുള്ളത് വരുന്നില്ല എല്ലാ ദിവസവും ആ അസുഖങ്ങളൊക്ക ആയിക്കോണ്ടേ മിസ് ഇപ്പം ഇനി സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുന്നുണ്ടോ ഈ സാറ്റർഡേ ആ പറഞ്ഞ് നോക്കണം എന്ന് എനിക്കും ഉണ്ട് കാരണം ഒരു റിവിഷൻ പോലും എനിക്കിനി എക്സാമിന് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഉള്ള ഒരു ഇതും ഉണ്ട് ആണോ അതെ മിസ്സേ അതെ മിസ്സേ മിസ്സിന് നാളെ ഫസ്റ്റ് അവർ എവിടെയാണ് ഉള്ളത് ഇംഗ്ലീഷ് ഏത് ക്ലാസ്സിലാണ് ടെൻത് ബി എനിക്കാ അവർ ഒന്ന് തരാമോ എനിക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് അവിടെ തീർക്കാനുണ്ട് ഞാൻ നയൻത് എ തരാം ആ മതി മിസ്സേ മതി മിസ്സേ മിസ്സേ നാളെ ആയാലും കാണുമല്ലോ ക്ലാസ് നാളെ അവധിയൊന്നും കാണില്ലായിരിക്കും അല്ലേ ആ മതിയായിരുന്നു ഇനിയും പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ടല്ലോ ഒത്തിരി നമുക്ക് എന്നാൽ എച്ച് എമ്മിനോട് ചോദിച്ച് ഓൺലൈൻ ക്ലാസ് വെച്ചാലോ ആ അതെ മിസ്സേ

ആ ലെറ്റർ കൊടുത്ത് നോക്കാം അല്ലേ സ്റ്റുഡൻ പേരൻറ്സ് സമ്മതിക്കുവോ അല്ല പിന്നീട് ഫോണിനകത്ത് സ്റ്റുഡൻറ്സ് എന്നെല്ലാം പറയുമോ ആ പിന്നെ മിസ്സിൻറെ അവിടെ റേഞ്ച് ബുദ്ധിമുട്ടുണ്ടോ

പിന്നെ പിന്നെ എന്നാ ഉണ്ട് മിസ്സേ ആ ശരി ഓക്കെ മിസ്സേ നമുക്ക് ഒരുമിച്ച് കാണാം